ഹലോ ഏഹ് ഹലോ ആ പറഞ്ഞോ ആ ആ ഓക്കെ ടൈം എപ്പോഴാ ഒന്ന് ഓ അത് ഓ അപ്പോൾ ഫുഡൊക്കെ എങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണോ എങ്ങനെയാണ് ഓക്കെ അപ്പോൾ

ഓക്കെ ഓക്കെ അതിന് ഓക്കെ നമ്മൾ ഇപ്പോൾ വരുമ്പോൾ തന്നെ പേയ്മെൻറ്റെ ചെയ്യണോ അല്ലയോ നമ്മള് സ്കാൻ ചെയ്തിട്ട് എങ്ങനെയാണ്

ഓക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഡോക്ടറിനെ കാണണോ എന്താ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ അതായത് നമ്മള് സ്കാൻ ചെയ്യുന്നതിനേക്കാൽ മുമ്പ്

ഓക്കെ താങ്ക്സ് ഓക്കെ ഇല്ല ഇല്ല